ഇപ്പോൾ വയനാട് ജില്ലേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇന്നിപ്പം നെൽകൃഷീം അപ്പം അതൊക്കെയാണ് കൂടുതലായിട്ട് ഉള്ളത് പിന്നെ വേറെ പലതരം കൃഷികളുണ്ട് വാഴകൃഷി പിന്നെ കാപ്പികൃഷി അങ്ങനത്തെ പലതരം കൃഷികളും കാര്യങ്ങളക്കെയ്ണ്ട് ഇപ്പം അതിൻ്റെക്കെ ഉൽപാദനം കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ലേശം കുറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് വരുന്നത് കാരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൃഷിക്കൊന്നും ആളെ കിട്ടാത്ത ഒരവസ്ഥയാണ് എല്ലാവരും വലിയ വലിയ ജോലിലേക്കും കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് കൃഷിയിലേക്കക്കെ ആൾക്കാർ കുറവായിട്ടാണ് ഉള്ളത് അപ്പം അതിൻ്റെ ഉൽപാദനോം താരതമ്യേന കുറഞ്ഞ് വരുകയാണ് അപ്പം ആദ്യമൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ കൃഷി നടത്തി നല്ല രീതിയിലുള്ള ലാഭാമോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളക്കെ ഉണ്ടായിരുന്നു പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം അതായത് ഓരോ കോഴി ഫാമ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളക്കെയുണ്ട് പിന്നെ കാപ്പി കൃഷിന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാപ്പിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വയനാടൻ കാപ്പിയാണ് നല്ല ഉണ്ട കാപ്പിന്നൊക്കെ പറയും അപ്പം അതൊക്കെയാണ് നല്ല രീതിയിലൊള്ള കാപ്പിയും കാര്യങ്ങളക്കെ ഉ ള്ളത് ഇതൊക്കെ നല്ല രീതിയിൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇപ്പം